എൻ്റെ പ്രോഡക്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ തന്നെ സ്മാർട്ട് ഫോണാണ് അതിനെക്കുറിച്ച് പോസിറ്റീവ് പറയുവാണെങ്കിൽ തന്നെ എന്താ പറയാ വാങ്ങണത് സമയത്താണെങ്കിൽ നല്ലൊരു ഫോണായിരുന്നു നല്ല ലൈറ്റ് വെയ്റ്റായിട്ടുള്ള സാധനം പിന്നെ കൊണ്ട് നടക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു പിന്നെ പറയ ക്യാമറ ക്ലാരിറ്റി ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു നല്ല ക്യാമറ ക്ലാരിറ്റി ആയിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ തന്നെ ചാർജ് വേഗമെന്ന് ചാർജ് കയറുവായിരുന്നു വാട്ടർ പ്രൂഫ് ആണ് എല്ലാംകൊണ്ടും ഒരു നല്ല ഫോണായിരുന്നു വാങ്ങണത് സമയത്ത് ഇതാണ് ഇതിനെക്കുറിച്ച് പോസിറ്റീവ് പറയാനുള്ളത് പിന്നെ അതിൻ്റെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിരുന്നു ഇതിനെക്കുറിച്ച് പോസിറ്റീവ് പറയാനാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് പക്ഷേ നെഗറ്റീവ് പറയുകയാണെങ്കിൽ തന്നെ ആ ഫോൺ വാങ്ങി കുറെ ദിവസം കഴിഞ്ഞപ്പത്തേനും എന്താ പറയാ ചാർജ് പെട്ടെന്നിറങ്ങി പോവാ പതുക്കെ കയറുക പെട്ടെന്നിറങ്ങി പോവാ നമ്മൾ ജസ്റ്റ് ചാർജ് ഒന്ന് ഫുൾ ആക്കീട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫോണിൽ കളിച്ചാൽ അപ്പോൾത്തന്നെ രണ്ടുമൂന്നു ശതമാനം ഇങ്ങനെ തീർന്നു പോകും അതേ അവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ ഫോണുള്ളത് മാത്രമല്ല എന്താ പറയാ ക്യാമറയുടെ ക്ലാരിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞുപോയി ഭയങ്കരമായിട്ട് മങ്ങിപ്പോയി അത് വാങ്ങിയ സമയത്തുണ്ടായിരുന്ന ക്ലാരിറ്റി ഇല്ല ഇപ്പം ഫോണിൻ്റെ ക്യാമറയ്ക്കെന്ന് പറയുന്നത് പിന്നെ വാട്ടർ പ്രൂഫാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിയത് ബട്ട് ഇപ്പോൾ വാട്ടർ പ്രൂഫ് വെള്ളം തട്ടിയാൽ തന്നെ ഫോണിങ്ങനെ ഭയങ്കര ഇതാണ് പിന്നെ ഭയങ്കര ഹാങ്ങാവലാണ് മൊത്തത്തിൽ ഒരു ഇതാണ് പിന്നതിൻ്റെ നെഗറ്റീവ് പറയുവാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവസ്ഥാന്നു പറയുന്നത് പിന്നെ ഇപ്പോൾ എന്താപറയാ വേഗന്ന് ചാർജിങ്ങനെ ഇറങ്ങിപ്പോകും അതാണിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്